ഒഴിവു സമയങ്ങളിൽ നമുക്ക് കുട്ടികളെ അവരുടേതായ കളികളിലേക്ക് ഏർപ്പെടുത്താം അല്ലെങ്കിൽ നമുക്ക് പാർക്ക് കുട്ടികൾക്ക് വേണ്ടി പ്ലേ പാർക്കുകളായിട്ടു കുറേ നമ്മുടെ ചുറ്റുപാടും തന്നെയുണ്ട് അപ്പം അവരുടെ അവിടെ കൊണ്ടുപോവുക പിന്നെ അവരുടെ ഇഷ്ടത്തിനു അവരുടെ ഫ്രണ്ട്സിൻ്റെ കൂടെ കളിക്കാൻ വിടുക